കോഴി വ്യാപാരത്തിലൊക്കെ ആളുകൾ അഭിമുഖീകരിക്കുന്ന ചില പ്രധാന വെല്ലുവിളികൾ എന്തൊക്കെയാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മെയിനായിട്ടും നമുക്ക് പറയാം പിന്നെ കോഴികളെ നമ്മളൊരുപാട് ചെറിയ ചെറിയ കോഴികളെ ആയിരിക്കും നമ്മള് അതായത് ബ്രോയിലർ കോഴീൻ്റെ വ്യാപാരായിരിക്കില്ലേ കൂടുതലും അപ്പോൾ നമ്മള് ചെറിയ ചെറിയ കോഴികളെ ഒരുപാട് നാൽപ്പത് ദിവസം കൊണ്ട് വളരുന്ന കോഴികളെയൊക്കെയായിരിക്കും നമക്ക് നമ്മള് വളർത്തുന്നത് പിന്നേന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഇത് കുറെ കോഴികളുണ്ടാകുമല്ലോ പത്തിരുന്നൂറ് കോഴികളുണ്ടാകും ഒര് ഫാമില് ഇരുന്നൂറെന്നല്ല അതിലും മേലെ കോഴികളുള്ള ഫാമുകളൂണ്ട് എന്നാലും ഞാനൊരെക്സാമ്പിള് പറഞ്ഞെന്നേയുള്ളു അപ്പോൾ പത്തിരുന്നൂറ് ഈ കോഴികൾക്കൊക്കെ എന്തെങ്കിലും അസുഖം വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാവർക്കും വരും ഇപ്പം അതുകൊണ്ട് തന്നെ എല്ലാ എണ്ണവും ചത്ത് പോകാനുള്ളൊരു സാധ്യത കാര്യങ്ങളൊക്കെയുണ്ട് പിന്നെ നമ്മളിപ്പം കുറച്ചകലെയൊക്കെ ആണെങ്കില് ഇപ്പോൾ നമ്മള് കോഴീനെ ഫാമൊക്കെയാണെങ്കിൽ നമ്മള് പറയാം ഞങ്ങള് രണ്ട് മൂന്ന് പേരൊക്കെ ചേർന്നിട്ടായിരിക്കും ഒരാളെവിടെയെങ്കിലും പോവുകയാണെങ്കില് ബാക്കി ഉള്ള മറ്റുള്ളവര് കോഴീനെ പരിപാലിക്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും പിന്നെ അത് മെയിനായിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കില് അതായത് ഞങ്ങള് ഒരു പ്രാവശ്യം ഫാമില് പിന്നൊരു കോഴിക്ക് പനി പിടിച്ചിട്ടൊരു പിന്നെ നൂറ് നൂറോളം കോഴികള് ചത്ത് പോയിട്ടുണ്ട് അതാണ് മെയിനായിട്ട് നമ്മള് മോശമായിട്ടുള്ളൊരു സംഭവമായിട്ട് തോന്നുന്നത്